ഹലോ ഇത് കിഴക്കേടത്ത് ഗാസ് ഏജൻസി അല്ലേ ആ ഞാൻ ഇത് തോക്കാവടി കാരിക്കാലയിൽ നിന്നാണ് വിളിക്കുന്നത് ആ എന്തിനാണെന്ന് വച്ചാൽ ഞാൻ നമ്മൾ ഇപ്പം നമ്മൾക്ക് കിഴക്കേടത്ത് ഗ്യാസിന് മുമ്പ് ആഴ്ചയിൽ ആഴ്ചയിൽ വരുന്നില്ലല്ലോ നേരത്തെയൊക്കെ എല്ലാ വ്യാഴ്ചയും വന്നു കൊണ്ടിരുന്നതല്ലേ പക്ഷെ ഇപ്പം വരാറില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം കറക്റ്റ് ആയിട്ട് ഗ്യാസ് മാറി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല മറ്റേ ഗാലക്സിക്കാർ ആണെങ്കിൽ ഗ്യാലക്സി ഗ്യാസ് ഏജൻസി ആണെങ്കിൽ അവർ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് അതിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതിപ്പം ഈ സേവന തടസങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് അത് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം കിഴക്കേടത്തിൻ്റെ ഗ്യാസ് ഏജൻസിയുടെ അത് കണക്ഷൻ ഞങ്ങൾക്ക് റദ്ധാക്കണമായിരുന്നു റഫറൻസ് നമ്പറോ എ ബി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് സീറോ വൺ ആ ആ അപ്പം അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാമോ ഇപ്പം എപ്പോൾ തന്നെ ഇത് റദ്ദാക്കാൻ പറ്റും എനിക്ക് ഇത് റദ്ദാക്കിയാൽ മാത്രമേ മറ്റേത് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം അതിന് ഒന്ന് ബുക്ക് ചെയ്തിട്ട് ഒന്ന് പറയാൻ പറ്റുമോ അതൊന്ന് റദ്ദാക്കിയിട്ട് പറയാൻ പറ്റുമോ റദ്ദാക്കുമ്പം എന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും വരുമോ ഇത് റദ്ദായി കഴിയുമ്പത്തേക്കും ആ മെസേജ് വരും അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഒന്ന് വിളിച്ചും കൂടെ ഒന്ന് പറഞ്ഞേക്കാമോ അല്ലെങ്കിൽ ഞാൻ നാളെ ഒന്ന് വിളിച്ചോളാം എത്ര ദിവസം എടുക്കുമായിരിക്കും ഇത് റദ്ധാക്കാൻ വേണ്ടിയിട്ട് ഓ മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയാകുമോ ആ ഓക്കെ ഓക്കെ ഓക്കെ അതല്ല ഇനി ഇപ്പോൾ നമ്മൾ ഇത് റദ്ധാക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത കണക്ഷൻ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ശരി താങ്ക് യു